ഇപ്പം നമുക്ക് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആണെങ്കിലവർക്ക് ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും അഡ്മിഷനു കയറാം പൈസ കൊടുത്ത് പ്രൈവറ്റായിട്ട് പഠിക്കുന്നതല്ലേ അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻ്റിൽ ആണെങ്കിൽ നമുക്കിച്ചിരി പിന്നെ നമുക്ക് അഡ്മിഷൻ ഇപ്പോൾ പ്ലസ്വൺ ഒക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും കാരണം അതിന് മാർക്ക് നല്ല മാർക്ക് വേണം പിന്നെ ഇത്ര പേഴ്സൻ്റേജ് നയൻ്റി പേർസൻ്റേജ് മുകളിലേക്കുള്ള കുട്ടികൾക്കൊക്കെ ഒരുവിധം പെട്ടെന്ന് അഡ്മിഷൻ ലഭിക്കുവാൻ സാധിക്കും അതുപോലെ പിന്നെ അതിനുതാഴെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ പാടാണ് അതുപോലെ സ്വകാര്യ മേഖലയിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് എപ്പോൾ എപ്പോൾ വേണമെങ്കിലും അഡ്മിഷൻ ലഭിക്കും പിന്നെ ഗവൺമെൻ്റിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചിലവുകളൊന്നുമില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗവൺമേൻ്റ് തന്നെ ചിലവേറ്റെടുക്കും മുന്നോട്ടുള്ള എല്ലാ നമ്മുടെ പുസ്തകങ്ങളാണെങ്കിലും പിന്നെ നമുക്ക് ഉച്ച ഭക്ഷണം തരുന്നുണ്ട് പുസ്തകങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങളും യൂണിഫോമുകളുമൊക്കെ കൊടുക്കുന്നുണ്ട് അവയെല്ലാം നമ്മുടെ ഗവൺമെൻ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ആനുകൂല്യം ഗവൺമേൻ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെതന്നെ നമ്മുടെ ഇപ്പം പ്രൈവറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലെല്ലാം ചിലവാണ് അവർക്ക് ഭക്ഷണം കൊണ്ടുവരണം അതുപോലെതന്നെ ഭക്ഷണത്തിന് ചിലവ് പിന്നെ ഫീസുകൾ അതുപോലെ ബുക്കും പുസ്തകങ്ങളെല്ലാം മേടിക്കണം ഇത് രണ്ടും നോക്കുമ്പം പിന്നെ നമ്മുടെ ഗവൺമേൻ്റ് സ്ഥാപനം നമുക്കൊത്തിരി ഏറെ ഉപകാരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുന്ന പഠിച്ച് മുന്നോട്ടു പോവുകയാണെങ്കിൽ അവർ ഏറ്റവും നല്ല അവിടുത്തെ നമ്മളുടെ ഗവൺമെൻ്റിൻ്റെ അതായത് പൊതുവിദ്യാഭ്യാസം നമുക്ക് നല്ല അറിവ് പൊതുവിദ്യാഭ്യാസത്തിലും നമുക്ക് അറിവുകൾ കിട്ടുന്നുണ്ട് ഒത്തിരി ഒത്തിരി കാരണം അതിന് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു നമ്മൾ മുന്നോട്ട് പോകുന്നു അതുപോലെ ട്യൂഷൻ സെൻ്ററുകൾ ഇപ്പോൾ ട്യൂഷൻ സെൻ്ററുകളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്കൂളിൽ ചില വിഷയങ്ങൾ ഇപ്പം ഗവൺമെൻ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ചില വിഷയങ്ങൾ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല ചിലപ്പം അവർ പഠിപ്പിക്കുന്ന സാറ് പഠിപ്പിച്ചപ്പോൾ മനസ്സിലായില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട് അപ്പം അവർക്ക് ട്യൂഷന് വിടും ട്യൂഷന് വിടുമ്പം ചില അദ്ധ്യാപകർ നന്നായിട്ട് ഇപ്പം മാത്സാണ് എല്ലാവരുടേയുമൊരു വലിയൊരു വിഷയം മാത്സാണെങ്കിൽ അത് ശരിക്കും അവരെ ഇരുത്തി ചെയ്യിപ്പിച്ചു പിന്നേയും പിന്നേയും ഹോം വർക്ക് ചെയ്യിപ്പിച്ചു അവരെ നന്നായിട്ട് ട്യൂഷൻ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അവർക്കേറെ അറിവ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർ എല്ലാവരേയും ട്യൂഷനു പോകുന്നു ട്യൂഷനു പോകുന്നതുകൊണ്ട് ഒത്തിരി പേർക്ക് ഒത്തിരി ഉപകാരമുണ്ട് ഒത്തിരി കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ മുന്നോട്ട് നോക്കുന്നുണ്ട് ഒത്തിരി കുട്ടികൾ എല്ലാ കുട്ടികളും മാക്സിമം നല്ല വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നുണ്ട് ഓരോ കോച്ചിങ് സെൻ്ററുകളുണ്ട് കോച്ചിങ്ങ് സെൻ്ററുകളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കോച്ചിങ്ങിൽ നമ്മളെ അറിവുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിലും ഇങ്ങനെ ഉള്ള ട്യൂഷൻ സെൻ്ററും കോച്ചിങ്ങ് സെൻ്ററുമൊക്കെ നമുക്ക് മറ്റുള്ള ഇവിടത്ത് പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ ഇവരിവിടെ വന്ന് ഇവിടുത്തെ അധ്യാപകരോടൊക്കെ കാര്യങ്ങളെല്ലാം വിശധീകരിച്ചു നന്നായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവർക്ക് പഠിക്കുവാൻ സാധിക്കും പിന്നെ ഗവൺമെൻ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി ചിലവുകൾ കുറവുണ്ട് അതാണതിൻ്റെ വ്യത്യാസങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ടുകിട്ടും മുന്നോട്ട് പിന്നെ പഠിക്കാൻ ഉള്ള എല്ലാ സൗകര്യവും കൊടുക്കുന്നുണ്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് സ്വകാര്യ സ്കൂളുകളാണെങ്കിൽ അവർക്കതൊന്നും കിട്ടത്തില്ല എല്ലാം കാശിനുപണം കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പണം ചിലവാക്കണം പിന്നെ ട്യൂഷൻ സെൻ്ററെന്നു പറയാനും നമുക്കെപ്പോഴും മനസ്സിലാക്കണം അത് ഒത്തിരി നന്നായിട്ട് പഠിപ്പിക്കുന്ന അദ്ധ്യാപകരുണ്ട് നന്നായിട്ടിരുത്തി ഒന്നുകൂടിയവർക്ക് മനസ്സിലാക്കി മാതാപിതാക്കന്മാർക്ക് സമയം കാണത്തില്ല അപ്പം എന്തെങ്കിലും എല്ലാവർക്കും ഓരോ ജോലിയും പദ്ധതികളൊക്കെ കാണും അപ്പം അവർക്കിരുത്തി പഠിപ്പിക്കുവാനായിട്ട് നമ്മൾ ട്യൂഷനു വിടും ട്യുഷനു വിടുമ്പം ഒത്തിരി നന്നായിട്ട് പിന്നെ കുട്ടികൾ പഠിക്കുന്നവരുണ്ട് നന്നായിട്ട് മാത്സിലും സോഷ്യൽ ആണെങ്കിൽ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ സോഷ്യലൊക്കെ അവർ നന്നായിട്ട് വായിച്ചു പഠിക്കും പിന്നെ എല്ലാ കാര്യങ്ങളും ട്യൂഷൻ സെൻ്ററുകൊണ്ട് ഒരുപാട് ഉപകാരം പിള്ളേർക്ക് കിട്ടുന്നുണ്ട് പൈസ കൊടുക്കുന്നുമുണ്ട് പക്ഷെ അങ്ങനെ പിന്നെ നമ്മൾ നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിലേതാണെങ്കിലും അവിടെ ചോദിച്ച് അദ്ധ്യാപകരോട് ചോദിച്ചു മനസ്സിലാക്കുവാനുള്ള കഴിവ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുകയാണെങ്കിൽ കുഴപ്പമില്ല കുറേപേർ ചോദിക്കത്തില്ല മാറിനിൽക്കും എന്നിട്ട് ട്യൂഷൻ ട്യൂഷനു പോവും പക്ഷെ അവരോട് ചോദിച്ച് അദ്ധ്യാപകരോട് ചോദിച്ച് നന്നായിട്ട് പിന്നെ പഠിച്ച് എഴുതുവാനുള്ള കുട്ടികളുമുണ്ട് ചോദിച്ചു മനസ്സിലാക്കി പഠിക്കാനുള്ള കുട്ടികളുമുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് നമ്മൾ പൊതു വിദ്യാഭ്യാസമായി മറ്റേ ഗവൺമെൻ്റ് വിദ്യാഭ്യാസവും സ്വകാര്യ വിദ്യാഭ്യാസവും ഒക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് നമുക്ക് ഇങ്ങനെയാണ് എന്നാൽ ശരി ഓക്കെ